കലാകാരൻമാരെ പറ്റി കലകളെ ഒക്കെ പറ്റി അറിയാനായിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ സെൻ്ററുകളില്ല അതുപോലെ നമുക്ക് കലകൾ നമ്മുടെ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ എന്തെങ്കിലും നാടകം അല്ലെങ്കിൽ എന്താണ് പറയുക കഥാപ്രസംഗം അല്ലെങ്കിൽ ഗാനമേള അങ്ങനെയൊക്കെ അതുവഴിയാണ് നമുക്ക് ഈ കലാകാരൻമാരെ പരിചയപ്പെടാനും അവരുമായിട്ട് സംസാരിക്കുവാനും ഒക്കെ സാധിക്കുന്നത് കലാകാരൻമാർ തികച്ചും നമ്മുടെ ഭൂമിയിൽ സ്യഷ്ടിക്കപ്പെട്ട വളരെ ഏറെ നല്ല കാര്യം നല്ല നല്ലതാണ് നല്ല ഒരു കലാരന്മാരൊക്കെയാണ് ഉള്ളത് അവരുടെ അഭിനയം അവരുടെ ആ ഒരു ജന്മപരമായിട്ട് കിട്ടുന്ന അഭിനയം അവർക്ക് അവരുടെ അഭിനയം അവിടെ മുൻപിൽ കാഴ്ച വയ്ക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് നമുക്ക് അവ കലകളെ കുറിച്ച് അറിയാൻ പറ്റും മറ്റു കലകൾ അവരുടെ അവരുടെ കഴിവുകൾ തന്നെയാണ് അവരുടെ പറയുമെന്ന് കലകൾ എന്നു പറയുമ്പോൾ എന്താണ് ചിത്രങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്നവരുണ്ട് ഡാൻസ് കളിക്കുന്നവരുണ്ട് അതുപോലെ നാടകം നാടകത്തിൽ അത് നമ്മൾ ചിത്രങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഓരോരുത്തരും വരയ്ക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കണ്ടാൽ അറിയാം ഓരോ ഓരോ വ്യത്യസ്തതയിലാണ് അവർ വരയ്ക്കുന്നത് അവരുടെ കഴിവുകൾ അവരുടെ ഭാവനയിൽ വരുന്ന ചിത്രങ്ങൾ അവരവരുടെ കഴിവിന് അനുസരിച്ചു അവർ വരയ്ക്കുന്നുണ്ട് അവർ എന്താണ് പറയുക അവരുടെ ഭാവനയിൽ വരുന്ന ചിത്രങ്ങൾ അവരുടെ ഭാവന ഭാവനയിൽ വരുന്നതാണ് ആ പേപ്പറിലോട്ട് അവർ ആ ഒരു വര

നമുക്ക് ഇവിടെ തന്നെ അടുത്തു തന്നെ ഒരു കലാകാരനുണ്ട് നന്നായി അയാൾ നാടകം കളിക്കുന്ന ആളാണ് നാടകം കളിക്കാനും അറിയാം ഡയറക്ഷൻ ചെയ്യാനും അറിയാം പുള്ളി നല്ല ഒരു കലാകാരനാണ് അയാൾ അഭിനയത്തിൽ ജീവിക്കുകയാണ് ജീവിച്ചു കാണിക്കും അയാൾ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നവർ അവരുടെ ഭാവനയിൽ കാണുന്ന ചിത്രം അവരുടെ ഭാവന നമുക്ക് നമുക്ക് എല്ലാവർക്കും പിന്നെ എന്താണ് ചിന്തിക്കാൻ സാധിക്കും പക്ഷേ അത് അതൊരു പേപ്പറിലോട്ട് വരയ്ക്കുവാനും എഴുതുവാനായിട്ട് എല്ലാവർക്കും സാധിച്ചെന്നു വരില്ല പക്ഷെ അതൊരു കലാകാരന് ഒരു ചിത്രം ഒരു വരയ്ക്കുന്നവനാവട്ടെ കവിത എഴുതുന്ന ആളാവട്ടെ അതുപോലെ നാടകം എഴുതുന്നവരാകട്ടെ അപ്പോൾ അത് അവരെ അതിലോട്ട് അതിലോട്ട് പേപ്പറിലോട്ട് അത് പ്രാവർത്തികമാക്കുന്നത് കലാകാരന്മാർക്ക് മാത്രമേ സാധിക്കത്തുള്ളു അത് വലിയ ഒരു കാര്യം തന്നെയാണ് ചിത്രങ്ങൾ ആയാലും പാട്ട് പാട്ട് എഴുതുന്നു കവിതകൾ എഴുതുന്നുണ്ട് അവരുടെ ഭാവനയിൽ കാണുന്ന വരികൾ അവർ എന്താണ് പറയുക അവർ അതിലോട്ട് എത്തിക്കുന്നില്ലേ ആ ഒരു മലയാളത്തിൻ്റെ അർത്ഥവത്തായ വാക്കുകൾ അതിലേക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താണ് നല്ല ഒരു കലാകാരന്മാരെ കിട്ടുന്നത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ് ഈ കഴിവുകൾ ഉള്ളവരുടെ എന്താണ് ഭാവനകൾ എല്ലാം കാണുമ്പോൾ നമുക്ക് അത് വലിയ ഒരു അനുഭവം തന്നെയാണ് സാധാരണ അനുഭവത്തിലോട്ട് വരുന്നത് ചിത്രകാരൻമാരെ കാണുമ്പോൾ അവരുടെ അവർ വരയ്ക്കുന്ന പാഠങ്ങളായാലും അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ എന്താണ് പറയുക അവരുടെ ഭാവനയിൽ വരുന്ന ചിത്രങ്ങൾ അവർ നമ്മുടെ മുമ്പിലോട്ട് അവർ എത്തിക്കുകയാണ് ഇപ്പോൾ അവർ ആളെ കൊടുത്തിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ അവർ വരയ്ക്കുകയും അവർ അതിനെ ഒരു പച്ചയായിട്ട് അതിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അത് വളരെ ഏറെ നല്ല ഒരു കാര്യമാണ് പിന്നെ അവരുമായിട്ട് സംസാരിക്കും നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും അവരുടെ വര വരയെപ്പറ്റി ആണെങ്കിലും അവരുടെ ചിത്രങ്ങൾ ആയാലും കഥകൾ ആയാലും എന്താണ് അവരുടെ ഭാവനയിൽ വരുന്നതെല്ലാം നമുക്ക് അതിലോട്ട് പ്രാവർത്തികമാക്കുവാൻ ആയിട്ട് സഹായിക്കട്ടെ